ആ എന്നാ ഉണ്ട് നിങ്ങൾ ഈ പുര പണിയുന്നത് കാരണം ഞങ്ങൾക്കാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ശബ്ദവാണ് സിസ്റ്റേഴ്സെല്ലാം ഭയങ്കര കംപ്ലെയ്ന്റ് ഒക്കെയാണ് അത് നിങ്ങൾ പുര പണി അങ്ങോട്ട് മാറ്റിയെങ്ങാനും വയ്ച്ചാലോ പക്ഷെ അത് നി അത് അത് നിങ്ങളുടെ കാര്യം ഞങ്ങൾക്കാണെങ്കിൽ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ പൊടിയെല്ലാം ഇങ്ങോട്ട് വരുന്നു അത് കാരണം സിസ്റ്റേഴ്സിനൊക്കെ ചുമയും കൊരയൊക്കെയാണെന്ന് ഭയങ്കര കംപ്ലെയ്റ്റാണ്

അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇപ്പോൾ അകത്തെപ്പണികളൊക്കെ തീർക്ക് അകത്തെപ്പണിയെല്ലാം കറക്ട് ആയിട്ട് ഒക്കെ ചെയ്യ് പിന്നെ പുറത്തെ പണികൾ പിന്നീട് എന്തെങ്കിലും മറയൊക്കെ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വെച്ച് നിങ്ങൾ ചെയ്യ് പൊടിയിങ്ങോട്ട് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഏറ്റവും അത്യാവശ്യം ആ അങ്ങനെ ആ അകത്തെ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തീർക്കണം കാരണം ഇനി ഞാനെത്ര പറഞ്ഞാലും ഒന്നും ആ മഠത്തിൻ്റെ ഹോസ്റ്റലിൽ ആണേൽ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അവർക്കാണെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല അവർ കിടന്നുകൊണ്ട് ഒച്ചപ്പാടും ഇതും ഞങ്ങൾ പൈസതന്നിട്ടല്ലെ മഠത്തിൽ അല്ല ഹോസ്റ്റലിൽ നിൽക്കുന്നത് അല്ലാതെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പഠനം ഒന്നും നിർത്തില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കെതിരായി കംപ്ലെയ്ൻറ്റ് പറയും ഇത് അഡ്മിഷൻ്റെ സമയമാണ് പ്ലസ് ടുവിനുള്ള പിള്ളേർ ഒക്കെ വരുന്നതാണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അത് ഒന്ന് അഡ്ജക്ട് ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അത് ഇനി അവസാനം ഞങ്ങൾ കംപ്ലെയ്ൻറ്റിലേക്ക് പോകേണ്ടി വരും

അല്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പിള്ളേരുടെ പരീക്ഷ കഴിയുന്നിടം വരെ അകത്തെ പണികളൊക്കെ ചെയ്യുക അകത്തെ പണി ചെയ്യ് നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ ബ്രഹ്മ്മാണ്ടം കെട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചെറിയ പുര വെച്ചാൽ പോരെ പിന്നെ അതും അല്ല നിങ്ങളുടെ പണിക്കാരാണെങ്കിൽ ഭയങ്കര വെള്ളം അടിക്കുന്നവർ സിഗരറ്റ് വലിക്കുന്നവർ ഇതിൻറ്റെയൊക്കെ നമുക്ക് ഈ പെൺപിള്ളേരല്ലേ ഇവിടെ താമസിക്കുന്നത് അപ്പം നമുക്ക് അത് ഒരു ഭയങ്കര കംപ്ലെയിന്റ് ആയിട്ടൊക്കെ വരികയൊക്കെ ചെയ്യും മ്മ് അപ്പം എന്നാൽ അപ്പം നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ എത്തണം അല്ലെങ്കിൽ പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഈ പിള്ളേരുടെ ഹോസ്റ്റലിലെ പിള്ളേരുടെ അത് ആ അത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിലെത്തിയാലെ നമുക്ക് ഇത് ഇത് തീർക്കാനായിട്ട് സാധിക്കത്തുള്ളു അപ്പം നമുക്ക് അത് പരിശ്രമിക്കാം ആ ഓക്കെ എന്നാൽ നമ്മൾ ശരിയാകട്ടെ ഓക്കെ ശരി